വെള്ളത്തിൻ്റെ അത്യാവശ്യം നമ്മള്ക്കറിയാവുന്നത് കാരണം വെള്ളം ഞാൻ ലോറി ടാങ്കർ ലോറി ഡ്രൈവറായിരുന്നു നമ്മൾ കുമരകം പോലുള്ള പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ വെള്ളത്തിന് തീരെ ബുദ്ധിമുട്ടുള്ളതാണ് കുടിവെള്ളത്തിന് അപ്പോൾ കോട്ടയം പോലുള്ള ടൗൺ ഏരിയയിൽ നിന്ന് വെള്ളം കുമരകം പോലുള്ള റിസോ കുമരകം പോലുള്ള വിനോദ സഞ്ചാരികളെത്തുന്ന റിസോർട്ടുകളിലൊക്കെ ശുദ്ധജലം എത്തിക്കുന്നത് ടാങ്കർ ലോറികളിലാണ് അപ്പോള് അതിൻ്റെ ആവശ്യകത കുമരകം പോലുള്ള പാട ശേഖരങ്ങളിൽ ഉപ്പുവെള്ളവും അതുപോലുള്ള അവിടുത്തെ കിണറുകളിലെ വെള്ളങ്ങളെല്ലാം നമ്മൾക്ക് കുടിക്കാൻ യോഗ്യതയല്ലാത്തതുമായ വെള്ളങ്ങളാണ് അപ്പോൾ അതെല്ലാം ടാങ്കർ ലോറികളാണ് കോട്ടയത്തുനിന്നും അതുപോലെ മറ്റുള്ള ദേശങ്ങളിൽ നിന്നും കുമരകം റിസോർട്ടുകളിലേക്ക് എത്തിക്കുന്നത് അവിടുത്തെ വീടുകളിലും ഈ കുടിവെള്ളം ചെറിയ ചെറിയ വണ്ടികൾ വാഹനങ്ങളില് ആണ് വീട്ടുകാരെല്ലാം ഉപ്പ് വെള്ളം കോരു വെള്ളം കണ്ണീർ മുക്കം ബണ്ട് തുറക്കുമ്പോൾ ഉപ്പ് വെള്ളം എല്ലാ കിണറുകളിലും ഉപ്പിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അപ്പോൾ അവരെല്ലാം ആശ്രയിക്കുന്നത് കരപ്രദേശത്തുനിന്നുള്ള ജലം ശുദ്ധജലമാണ് അപ്പോൾ അതിൻ്റെ നേർക്ക് ലോറികളിലും ചെറു വണ്ടികളിലും മറ്റും ടാങ്ക് സം വണ്ടിയിൽ ഫിറ്റെയ്തുകൊണ്ട് ആ വീട്ടിലു വീടുകൾക്കും അത് പോലെ റിസോർട്ടുകളിലേക്കും എല്ലാം വെള്ളം കൊടുത്തുകൊണ്ടിരിക്കുന്നു വെള്ളം പാഴാക്കരുത് വെള്ളം അമൂല്യമാണ് എന്നുള്ള ഒരു സന്ദേശം കൂടി ഇതിലുണ്ട് അപ്പോള് വെള്ളം ധാരാളമായി ലഭിക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല വെള്ളം ഇതുപോലെ കുടിവെള്ളം പോലും പ് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നവർക്കാണ് അതിൻ്റെ വില അവർ തുള്ളി വെള്ളം പോലും അനാവശ്യമായി പാഴാക്കുകയോ ഒന്നും ചെയ്യാറില്ല അപ്പോൾ ധാരാളം വെള്ളം ഉള്ളവർ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അവർ ആവശ്യത്തിന് വെള്ളം ഉപയോഗിച്ചേച്ച് ബാക്കി വരുന്ന വെള്ളം ചെടികൾക്കു വരെ നനയ്ക്കും മറ്റുള്ളവർക്ക് കുടിക്കാൻ പോലും ഒരു തുള്ളി ദാഹജലം ഇല്ലാത്തപ്പോഴാണ് ഉള്ളവർ ചെടികൾക്കും മറ്റുള്ള വൃക്ഷലതാദികൾക്കും വെള്ളം നല്ല ശുദ്ധജലം ഉപയോഗിക്കുന്നത്